സംസ്ഥാനത്തെ കലയിൽ സംഭാവനയെന്നു പറഞ്ഞാൽ ഞാനെന്റെ ഭാഗത്തു നിന്ന് നല്കിയിട്ടുള്ള സംഭാവനയെന്നു വെച്ചാൽ അതിനു കൂടുതല് പ്രചാരണം നല്കുകയെന്നൊ എന്നൊന്ന് ആകാം ഇപ്പം ഒരു കഥകളിയാകട്ടെ എന്തെങ്കിലും കലയാകട്ടെ അതു നടക്കുന്നുണ്ടെങ്കില് അതൊന്നു പോയി കാണുക അത് കൂടുതലാള്ക്കാരിലേക്ക് എത്തിക്കുക കൂടുതലാള്ക്കാർ വരുന്നുണ്ടെന്നു ഉറപ്പു വരുത്തുക അങ്ങനെ നാട്ടുകാരിലും അത് കാണാത്തവരിലും അത് പ്രചരിപ്പിക്കുകയെന്നുള്ളതാണ് എന്റെ ഭാഗത്തു നിന്നു ഞാന് ചെയ്തിട്ടുള്ളത് അതേപോലെ ഒരു സ്ഥലത്തെ കലയാണെങ്കില് അതു മറ്റ് ജില്ലകളില് പോയി ചെയ്യുക അതേപോലെ മറ്റു സംസ്ഥാന സംസ്ഥാനങ്ങളില്പ്പോയി അതു പ്രകടിപ്പിക്കുക അപ്പോൾ ഈ കലകള് കൂടുതലാള്ക്കാരിലേയ്ക്ക് ചെല്ലുന്നതായി നമുക്കു കാണാം അതേപോലെ ചില പാരമ്പര്യമായിട്ട് ചില കുടുമ്പക്കാരോരോ കലകളിലേര്പ്പെടുന്നത് നമുക്ക് കാണാം അപ്പം അതു നിർത്താതെ കൊൻടു പോകുന്നതും